മലയാള ഭാഷ എന്നു പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ സോറി കേരളത്തിൻ്റെ സാംസ്കാരിക ഭാഷയാണ് മലയാളം ഓക്കെ

മലയാളം സംസാരിക്കുന്നവർ പാർക്കുന്നു അതായത് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതു നാട്ടിൽ പോയാലും ഇന്ത്യയിൽ നമ്മളെവിടെ പോയാലും ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയ്ക്ക് വെളിയിലാണെങ്കിലും ഇന്ത്യയിലെ കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ കാര്യം പറയുന്നത് ഇന്ത്യയിൽ നമ്മള് ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പം ഏതു നാട്ടിൽ പോയാലും ഇന്ത്യയുടെ ഏതു ഭാഗങ്ങളിലും മലയാളികൾ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ നാട്ടിൽ പോയി ആശയവിനിമയത്തിന് മലയാള ഭാഷ നമ്മൾക്കൊരു പ്രശ്നമാകാറില്ല കാരണം മലയാളീസ് ഉള്ളതുകൊണ്ടാണ് ഈ മുക്കിലും മൂലയിലും നമുക്ക് മലയാളം അറിയാവുന്നവരെ മലയാളീസ് അല്ലെങ്കിലും മലയാളം അറിയാവുന്നവരെ കാണാനായിട്ട് സാധിക്കും പിന്നെ മലയാളികൾ മലയാളികളെ നമുക്കറിയാം മലയാളികളെ എവിടെ എവിടെ നിന്ന് കണ്ടാലും മലയാളികളെ തിരിച്ചറിയാനുള്ള ഒരു ഒരു എന്നുപറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഏതു നാട്ടിൽ പോയാലും അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം മലയാളികൾ മലയാളി നമ്മുടെ സംസ്കാരം നമ്മൾ മലയാളികളുടെ സംസ്കാരം നമുക്ക് ആ ഏത് ഇന്ത്യയുടെ ഏത് നാട്ടിൽ പോയാലും നമുക്കത് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ മലയാളികൾ എന്നു പറഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ ഒരു അഹങ്കാരമാണ് സ്വകാര്യ അഹങ്കാരമാണെന്നു തന്നെ പറയാം കാരണം മലയാളമറിയുക എന്നുപറഞ്ഞാൽ മറ്റുള്ള ഇപ്പോൾ ഞാനാണെന്ന് വച്ചാൽ ഞാൻ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ പോയി നിന്നാല്ൽ നമ്മുടെ മലയാളികളെന്ന് പറയുമ്പോൾ എല്ലാ നാട്ടുകാർക്കും മലയാളികളോടൊരു പ്രത്യേക സ്നേഹമാണ് കാരണം ബാക്കിയുള്ള ഭാഷകൾ നമുക്ക് എങ്ങനെയും പഠിച്ചെടുക്കാം അല്ലെങ്കിൽ മലയാളികളെന്ന് പറഞ്ഞാലൊരു പ്രത്യേക പ്രതേകതയുള്ള അതായത് ഒരുപാട് സൗമ്യതയും സ്നേഹവും ബാക്കിയുള്ളവരെ പരിഗണിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ഒരു പരിഗണന എല്ലാവർക്കും ഉണ്ട് മറ്റുള്ള നാട്ടിലുള്ളവർക്ക് അതായത് പുറത്തുള്ള കേരളത്തിനു പുറത്തുള്ള ബാക്കി സംസ്ഥാനങ്ങളിലുള്ളവർക്ക് മലയാളീസിനോട് ഒരു പ്രതേക സ്നേഹവും താല്പര്യവുമാണ് കാരണം അവർ അവർക്ക് ബാക്കിയുള്ളവരെ ഉയർത്തിക്കൊണ്ടു വരിക അല്ലെങ്കിൽ ബാക്കി നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മളെ ു നമ്മൾ നല്ല ശുചിത്വമുള്ളവരും നല്ല വൃത്തിയുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കൂടുതലുള്ളവരും എന്നൊക്കെ ആണ് അവരുടെ ആ ഒരു ഭാവനയിൽ ഇല്ലെങ്കിൽ അവർ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് എല്ലാവിധ കേരളീയരായ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം അതു നമ്മൾ എവിടെ പോയാലും പ്രകടിപ്പിക്കും അതുപോലെ മലയാളീസുകൾ എവിടെ മലയാളികളായിട്ടുള്ള അവർ എവിടെ ജീവിക്കുന്നോ അവിടെ അവരുടെ അവർ നമ്മൾ മലയാളികളുടെ പാരമ്പര്യം അതായത് അവരുടെ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും അപ്പം മലയാളികളായ മലയാളിയാണ് ഞാനൊരു മലയാളി എന്നൊരു കാര്യത്തിൽ ഞാൻ ഞാൻ അഭിമാനിക്കുകയാണ് കാരണം നമ്മളോടുള്ള നമ്മൾ ജീവിക്കുന്ന ആ ഒരു മേഖലയിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നതും മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്നതുമായ ഒരു സ്നേഹം അവരുടെ ഒരു സ്നേഹം അതെ കുറിച്ച് ആലോചിക്കുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഭിമാനിക്കുക തന്നെ വേണം